മാധ്യമങ്ങളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊക്കെ മലയാള ഭാഷയ്ക്കിപ്പോള് അർഹമായ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് ഇപ്പോള് നമ്മുടെ പി എസ് സി പണ്ടൊക്കെ ഡിഗ്രി എക്സാം ഇംഗ്ലീഷില് മാത്രമായിട്ടായിരുന്നു നടത്തിയിരുന്നത് ഇപ്പോള് മലയാള സബ്ജെക്ട് ഒരു പത്ത് മാർക്ക് വേറെ കൊടുക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ക്വസ്റ്റിയനുകളൊക്കെ ഇംഗ്ലീഷിൽ മാത്രായിട്ടേനു നടത്തിയിരുന്നത് ഇപ്പോള് അതിനൊക്കെ മാറ്റം വന്നു പിന്നെ എല്ലാ എക്സാമിനും മലയാളം ഒരു പത്ത് മാർക്ക് വച്ചിട്ട് നടത്തുന്നുണ്ട് അതൊക്കെ തന്നെ മലയാള ഭാഷയ്ക്ക് ആവശ്യമുള്ള പ്രധാന്യം കിട്ടുന്നുണ്ടെന്നാണ് കരുതുന്നത് പിന്നെ ഇപ്പോള് എല്ലായിടത്തും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഇംഗ്ലീഷ് ഒഴിവാക്കി കൂടുതൽ മലയാള ഭാഷയ്ക്കു പ്രാധാന്യം കൊണ്ടുവരാമെന്നു പറഞ്ഞിട്ട് കേന്ദ്ര കേരള സർക്കാർ അയനുമാണ്ടീറ്റ് ഇപ്പോള് എല്ലാ ഫയലുകളും കാര്യങ്ങളൊക്കെ മലയാളത്തിലന്നേണ് ടൈപ്പ് ചെയ്യുന്നതും അതിൻ്റെ നടപടിയൊക്കെ പൂർത്തിയാക്കുന്നതും പിന്നെ ഇപ്പോള് എല്ലാ വിദ്യഭ്യാസ സ്ഥാപനങ്ങളിലും മലയാളത്തിന് അർഹമായ പ്രാധാന്യം നൽകി ഒരു സബ്ജക്റ്റായിട്ട് അത്യാവശ്യം ഡിവിഷനുകളും ക്ലാസ്സുകളൊക്കെ എല്ലാ സ്കൂളിലും സ്കൂളുകളിലും ഒന്ന് രണ്ട് ഡിവിഷനുകളിലൊക്കെ മലയാളം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഇപ്പോള് നിലവിൽ